ആ നിങ്ങളേയ് പിന്നെ വളമൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കേട്ട് ഇപ്പോൾ എനിക്ക് എനിക്ക് കുറച്ച് വളം വേണമായിരുന്നു വാഴയ്ക്കുള്ളത് വേണം പിന്നെ പച്ചമുളക് പിന്നെ നമ്മുടെ പച്ചക്കറിക്ക് ആവശ്യമായത് തെങ്ങൊക്കെ ഉണ്ടല്ലോ തെങ്ങിന് തെങ്ങിന് തടം എടുത്തിട്ട് വളം ഇടണം അപ്പം അതിന് വാഴയ്ക്ക് തന്നെ എത്രയാവും വാഴക്ക് ഒരു വാഴക്ക് എത്ര വെച്ചാ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വാഴയ്ക്ക് ഇടണം അപ്പോൾ ഒരു പത്ത് വാഴയ്ക്ക് ആ അപ്പം അതനുസരിച്ച് ഒരു പത്ത് വാഴയ്ക്ക് വേണ്ടിയുള്ള വളം പിന്നെ അതുപോലെ നമ്മൾ പച്ചക്കറിക്ക് ഇടുന്നില്ലേ പച്ചക്കറിക്ക്

എല്ലുപൊടി അ ആ അപ്പം അതിനകത്ത് മറ്റേത് ഒരു പത്ത് കിലോ വല്ലതും ഞങ്ങൾക്ക് തന്നേക്ക് അ അത് പിന്നെ തെങ്ങിന് എന്നായെടുക്കും അ അപ്പോൾ ആ തെങ്ങിന് മണ്ടയ്ക്കടിക്കാൻ വല്ല മരുന്നുമുണ്ടോ തെങ്ങിന്റെ മണ്ടയ്ക്ക്

അം ആ അത് ഉണ്ടെങ്കിൽ അതും വേണം തെങ്ങ് വെച്ചാൽ പോരല്ലോ അതുംകൂടെ മണ്ടയ്ക്ക് അടിക്കണ്ടേ അപ്പം അതും രണ്ടും തെങ്ങിന്റെ ചോട്ടിൽ ഇടുന്നതും മണ്ടയ്ക്ക് അടിക്കുന്നതും പിന്നെ അതും വേണം പിന്നെ ഇനി പച്ചമുളകിനൊക്കെ ഇതൊക്കെത്തന്നെ ഇട്ടാൽ മതിയോ

അ അ അ അപ്പം അതിന് അനുസരിച്ച് പിന്നെ വേണ്ട വളം എനിക്ക് വേണം കുറച്ച് അ ഓക്കെ അപ്പം ഇത് ഞാൻ വാഴയ്ക്ക് പറഞ്ഞു തെങ്ങിന് പറഞ്ഞു പച്ചക്കറിക്ക് പറഞ്ഞു പച്ചമുളക് പച്ചമുളക് ആ പിന്നെ നമ്മടെ പുളിയ്ക്ക് ഒക്കെ അങ്ങനെ ഉള്ളതിനൊക്കെ വല്ല വളവും ഉണ്ടോ പുളി വളം ഒന്നും ഇടേണ്ട കരിയാറ്റം

പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്കും

ആ ഇപ്പം ഇത്രയും എല്ലാത്തിനും കൂടെ എത്ര രൂപയാവും ആ അപ്പം ഞാൻ നമ്മളത് നോക്കിയിട്ട് എല്ലാം കൂടെ നോക്കിയിട്ട് ചേച്ചിക്ക് ആയിട്ട് ലിസ്റ്റ് ട്ട് തരാം വാഴ പത്ത് പത്ത് വാഴ ബാക്കി വളത്തിന്റെയൊക്കെ എല്ലാംകൂടെ ലിസ്റ്റ് ചെയ്തിട്ട് തന്നിട്ട് ചേച്ചി ഇട്ടാൽ പോരെ

ആ അപ്പം അതനുസരിച്ച് എടുക്കാമെന്ന് വിചാരിക്കുന്നു പ്ലാവിനൊക്കെ വല്ലതും ചെയ്യാൻ പറ്റുമോ ഏച്ചി ഇല്ല ഒട്ടുമാവ് ആ പിന്നെ അവിടെ ചെറിയ തൈക്ക് ഒക്കെ അ